സൈക്കിൾ ഓടിക്കാൻ പോകുമ്പോൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു മെഡിസിൻ ആയിട്ട് എന്തേലും മീൻസ് പാരസെറ്റമോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഏറ്റോം നമ്മുടെ കയ്യിൽ ഏറ്റോം ആവശ്യമുള്ള മരുന്ന് ഏതൊക്കെയാണോ അതൊക്കെ ഒക്കെ നമുക്ക് സഹായിക്കും പിന്നെ നമുക്ക് മൺഡേ സൈക്ലിക്ക് വേണ്ടിയുള്ള ഓയില് ചെയിൻ ലൂബ് പിന്നെ കാറ്റടിക്കുന്ന പമ്പ് പിന്നെ അങ്ങനെ പല ടൂൾസൊക്കെ നമുക്കെടുത്ത് വെക്കാൻ സഹായിക്കും അത് നമുക്ക് പല തവണ ആവശ്യം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കതൊക്കെ എടുത്ത് യുസ് ചെയ്യാൻ സഹായിക്കും പിന്നെ ആഹ് ഇതൊക്കെ എടുത്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം എപ്പോളാണ് പഞ്ചർ ആവുക എന്ത് എന്തിന് എന്തിനൊക്കെ ഇപ്രാവശ്യം ലൂസ് ആവുന്നേന്ന് വെച്ചാൽ അപ്പം നമുക്കത് ടൈറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പോകുമ്പോൾ ആധാർ കാർഡ് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഐഡന്റിറ്റി കാർഡ് എന്തൊക്കെയാണോ അതൊക്കെ ഒന്നെടുക്കാൻ സഹായിക്കും ആധാർ കാർഡും ലൈസൻസും അങ്ങനെ അതൊക്കെ